നമ്മുടെ നിത്യ ജീവിതത്തിൽ സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രധാന്യമുള്ളൊരു കാര്യമാണ് സംഗീതം സംഗീതം കേൾക്കുക ആസ്വദിക്കുക എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും മൈൻ മൈൻഡൊന്ന് റീലീഫാവാകാൻ വേണ്ടീട്ട് നമുക്ക് സാധ്യമാകുന്ന ഒരു ഘടകമാണ് സംഗീതം എന്ന് പറയുന്നത് സംഗീതത്തിൽ പഴയ ഗാനങ്ങളും അതുപോലെ തന്നെ പുതിയ ഗാനങ്ങളുമുണ്ട് പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലെ ഗാനങ്ങൾ എന്ന് പറയുന്നത് വളരെ അർഥവത്തായിട്ടുള്ള ഗാനങ്ങളായിരുന്നു വയലാറിൻറ്റേതാവട്ടെ രവിചന്ദ്രൻ മാഷിൻ്റെതാവട്ടെ എല്ലാം വളരെ അർത്ഥവത്തായിട്ട് ആ ഗാനത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രണയമാണോ വിരഹമാണോ എന്നത് വളരെ അർഥവത്തായ വളരെ നല്ല വാക്കുകൾ കൊണ്ട് ഭംഗിയായിട്ട് ചെയ്ത ഗാനങ്ങളാണ് പഴയ ഗാനങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ പുതിയ ഗാനങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറക്ക് വേണ്ടീട്ട് ഉണ്ടാക്കപ്പെടുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ തലമുറകൾ കൂടുതലും സ്പീഡിനെ ഇഷ്ടപ്പെടുന്ന വേഗതയെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഗാനങ്ങളും വളരെ ഏറെ എന്താ പറയാ വേഗത കുടീട്ടാണ് ഇന്നത്തെ ഗാനങ്ങൾ അതുപോലെ തന്നെ അർഥങ്ങൾ എന്ന് പറയുന്നത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അർഥങ്ങൾ ഇല്ല ഇപ്പം ഗാനങ്ങൾക്ക് അർഥങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മലയാള വാക്കുകൾ വളരെ ചുരുക്കമാണ് മലയാള വാക്കുകൾ ഗാനങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണ് അതുപോലെ തന്നെ ഫോറിൻ കണ്ട്രീസിൻ്റെ പാശ്ചാത്യന്മാരുടെ അതി പ്രസരണം എന്ന് വേണമെങ്കിൽ പറയാം പുതിയ ഗാനങ്ങളിൽ കൂടുതലായിട്ടും കണ്ട് വരുന്നത് എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ ഗാനങ്ങളാണ് പുതിയ ഗാനങ്ങൾ ഇഷ്ടമല്ല എന്നല്ല പഴയ ഗാനങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം പുതിയ ഗാനങ്ങൾ ഇന്നത്തെ തലമുറയിലെ ഇന്നത്തെ ഗായകന്മാരെ ഇന്നത്തെ എഴുത്തുകാരെയും നമ്മൾ എന്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യണം കാരണം അവരും ഭാവിയിൽ വളർന്ന് വരുന്ന ഒരു തലമുറയാണ് വാഗ്ദാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പുതിയഗാനങ്ങൾ ഇഷ്ടമല്ല എന്നല്ല എന്നിരുന്നാലും പഴയ ഗാനങ്ങളോട് അത് ആരോട് ചോദിച്ച് കഴിഞ്ഞാലും ഏറെക്കുറെ പഴയഗാനങ്ങൾ നയൻറ്റീൻസിലെ പാട്ടുകളെയാണ് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുക കാരണം നമ്മളുടെ ജീവിതം എന്തോ അതിനെ തൊട്ട് കൊണ്ട് എഴുതിയിരിക്കുന്ന വരികളാണ് വര വയലാറിൻറ്റതൊക്കെ അതുപോലെ തന്നെ ഗാനം കേട്ട് ആസ്വദിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനുമുള്ള ടൈമ് കണ്ടെത്താനും പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ ആ തോന്നലാണ് പഴയ ഗാനത്തോടുള്ള ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ ഗാനങ്ങളെക്കാൾ കൂടുതൽ പഴയ ഗാനങ്ങളെയാണ് ഇഷ്ടം അത് നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഗാനം ഒരു ഗാനം ഒരു തുടക്കം ജീവിതത്തിൻ്റെ തുടക്കം ഒരു ദിവസത്തിൻ്റെ തുടക്കം നമ്മൾ ഒരു പാട്ട് കേട്ട് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത്രയും ഉന്മേഷത്തോടെയാണ് ആ ദിവസം കടന്ന് പോകുക അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഗീതത്തിന് വലിയൊരു പങ്ക് ഉണ്ട്